ഹലോ ചേട്ടാ ബിജു ചേട്ടൻ അല്ലേ ഞാൻ പിന്നെ ഓട്ടോ ഓട്ടം പറഞ്ഞില്ലായിരുന്നോ വൈകിട്ട് കൊച്ചിനെയും കൊണ്ട് ഇന്ന് സ് ആശുപത്രിയിലേക്ക് പോകാൻ ആയിട്ട് വരണമെന്ന് അന്നേരം പള്ളിടെ അവിടെ വരാനല്ലേ പറഞ്ഞത് അന്നേരം പിന്നെ കൊച്ചിൻ്റെ സ്കൂളിന്ന് ഒന്ന് വിളിച്ചായിരുന്നു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് അപ്പം കൊച്ചിന് ഒരു കൊച്ചിനെ ഒരു കൊച്ചിനെ ഇപ്പോൾ ഞാൻ കൊണ്ടു പോകാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കയാണ് എന്നിട്ട് അവിടുന്ന് കൊ ചേട്ടൻ അപ്പം ഒന്നാ സ്കൂളിലേക്ക് വരാവോ ഒന്ന് അവിടുന്ന് നമുക്ക് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പിന്നങ്ങ് സ്കൂളിലോട്ട് ഞാൻ സ്കൂളിലോട്ട് ചെല്ലാൻ ആയിട്ട് പറഞ്ഞത് അതാണ് സ്കൂളിന്ന് സ്കൂളിന് ചെന്ന് കൊച്ചിനെ വിളിച്ചോണ്ട് വന്നതിനുശേഷം ഒന്ന് അങ്ങോട്ട് പോകാൻ ആയിട്ട് നമുക്ക് ആ വഴി ചെന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ആയിട്ടാണ് അന്നേരം പിന്നെ ചേട്ടന് വഴി ഇങ്ങോട്ടത്തേക്ക് വഴി അറിയാമോ പള്ളിടെ അവിടെ പള്ളിടെ അവിടെ വന്നിട്ട് അവിടിന്നിങ്ങോട്ട് റോഡിക്കൂടെ നേര്ക്ക് കാണുന്ന റോഡിക്കൂടെ ഇങ്ങോട്ട് പോന്നാൽ മതി അവിടെ സ്കൂൾ കാണാം സ്കൂളിൻ്റെ അവിടെ രണ്ടുപേരും നിൽപ്പുണ്ട് ഉടനെ അങ്ങോട്ട് വന്നാൽ മതി എന്നിട്ട് നമുക്ക് ആ വഴി ഹോസ്പിറ്റലിലേക്ക് പോവാൻ ആയിട്ട് ശരിയെന്നാൽ അങ്ങോട്ട് പോരണം ശരി ആ ഓക്കെ